ഞാനൊരു വയനാട്ടുകാരനാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഏഷ്യൻ ഗെയിംസിലടക്കം നമ്മുടെ ഇന്ത്യ സ്വ സ്വർണമെഡൽ നേടിയപ്പോൾ നമ്മുടെ ഒരു വയനാട്ടുകാരിയായതിലുള്ള ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിന്നുമണി അത് പോലെ തന്നെ എന്റെ അമ്മയുടെ വീട് വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൻ്റെ സ്ഥലമാണ് സഞ്ജു സാംസൺ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ഒരു വ്യക്തി കൂടി ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാ കേൾക്കുമ്പോൾ അത്രയും ഭയങ്കര ഭയങ്കര കുറച്ചും കൂടി ഊർജ്ജം തരുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് തരണം ചെയ്ത് ഇങ്ങനെ ഒരു കായികരംഗത്ത് എത്തുകയും അവിടെ മത്സരിക്കാൻ അവിടെ ഇന്ത്യയെ പ്രതി പ്രതിനിധീകരിച്ചിട്ട് കളിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യങ്ങളാണ്